ചേട്ടാ സിബിയൻ ക്യാബ് സർവീസ് അല്ലേ ആ ഞാൻ ഇന്നലെ അവിടുന്ന് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി പന്ത്രണ്ടു മണിക്ക് നമ്മുടെ ഒലോക്കോട്ന്ന് ഇവിടെ ഒറ്റപ്പാലത്തേക്ക് അപ്പോൾ എന്താ വിളിച്ചതിൻ്റെ കാര്യംന്താച്ചാല് സംഭവം മൂപ്പര് കറക്റ്റായിട്ട് ഞാൻ വരണേന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നു കറക്റ്റായിട്ട് പന്ത്രണ്ട് മണി ആയാലും വലിയ ലേറ്റ് ആവാണ്ട് നല്ല രീതിയില് കൃത്യായിട്ട് തന്നെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചതാണ് ആളെ അപ്പോൾ ആളെ കൃത്യമായിട്ട് എന്താ പറയുക ഡ്രൈവറേയും ഒന്ന് പറയണം ആളുടെ നമ്പർ എൻ്റെ അടുത്ത് ഇല്ല അപ്പം ആൾടെ അടുത്ത് ഒന്ന് പറഞ്ഞോളിൻ ഓക്കേ ഞാനിപ്പോൾ ഇനി എന്തായാലും നിങ്ങളെ തന്നെ വിളിക്കോള്ളൂ എപ്പോഴും